ഒരു ഓർഡറ് തരാനായിരുന്നു അവിടെ ഫേമസ് ആയിട്ടുള്ള പിടിയും കോഴി ഇല്ലേ അത് ഡെലിവറി ചെയ്യില്ലേ ഹോം ഡെലിവറി ചെയ്യില്ലേ

ഒരു അമ്പത് പേർക്ക് ഉള്ളതായിരുന്നു സ്ഥലം മാനന്തവാടി

ആ ഡെലിവറി എത്രയാണ്

ആ വേറെ അവിടെ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാ

ബിരിയാണി ബിരിയാണിയാണ് വേണ്ടത് അതൊരു ഇരുപത്തഞ്ച് എണ്ണം മതി ഇരുപത്തഞ്ച് പേർക്ക് മൊത്തം ചേർത്ത് ആ നൂറ്റി അയിമ്പത് ഓക്കെ ആ ആ ആ

ഓക്കേ അപ്പോൾ രണ്ടിനും കൂടി ഒരു ദിവസം എത്ര ഇത് ഇരുപത്തഞ്ചാം തിയതിയിലേക്ക് അയ്യായിരം രൂപ ഓക്കേ അപ്പോൾ ടോട്ടൽ എത്ര വരും ആ അതെ അമ്പത് ബിരിയാണി ഇരുപത്തഞ്ച്

ഓക്കേ ഓക്കേ ആ അയച്ചു തരാം ഇരുപത്തഞ്ചാം തിയ്യതി രാവിലെ എത്ര മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ ഡെലിവറി ചെയ്യും ഓക്കേ ഓക്കേ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും കിട്ടുമല്ലോ അല്ലേ പേയ്മെൻ്റ് പേയ്മെൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്

ഓക്കേ ഓക്കേ ആ